ഹലോ ഗോൾഡ് ലോൺ ഓഫീസ് ആണോ ഓക്കേ സാറേ എൻ്റെ മോളുടെ പഠിത്തത്തിന് വേണ്ടി കുറച്ച് ഹയർ സ്റ്റഡീസിന് വേണ്ടി ലോൺ എടുക്കാൻ ആയിരുന്നു ഗോൾഡ് പണയം വെച്ചിട്ട് ആ സ്ഥലം ഉണ്ട് സ്ഥലവും വീടൊക്കെ ഉണ്ട് പതിനാറ് ഏക്കർ ഉണ്ട് ആ നേഴ്സിങ്ങിന് വിടാനായിരുന്നു അപ്പം മൂന്നു ലക്ഷം രൂപയാണ് അവർ പറയുന്നത് ഗോൾഡ് ഒരു അതറിയില്ല കറക്റ്റ് അറിയില്ല ഏകദേശം ഒരു പത്ത് പതിനഞ്ച് പവൻ ഉണ്ടാവും അതെങ്ങനെയാണ് അടക്കേണ്ടത് മാസാമാസം ആണോ അതോ പന്ത്രണ്ട് ശതമാനമോ കുറഞ്ഞ പലിശയൊന്നുമില്ലേ ആ അപ്പോൾ എത്രയായിരിക്കും പലിശ ആ അപ്പോൾ ഈട് വയ്ക്കാണ്ടിരുന്നാൽ വിദ്യാഭ്യാസ ലോൺ ആയിട്ട് കിട്ടില്ലേ ഓ ആ ഓക്കേ ഓ ഈ ഈ കോപ്പി മാത്രം മതിയോ അല്ലെങ്കിൽ വേറെ വല്ല ഇതും വേണോ സർട്ടിഫക്കറ്റും ആ അക്കൗണ്ട് ഓൾറെഡി ഉണ്ടല്ലോ അപ്പോൾ ആ ഓക്കേ താങ്ക് യൂ ഞാൻ എന്നാൽ തിങ്കളാഴ്ച വരാം

ആ അത് അക്കൗണ്ടിലോട്ടാണോ അതോ കയ്യിലാണോ കിട്ടുന്നത് ക്യാഷ് ആ ഓക്കെ എന്നാൽ